മറ്റുത്തരവാദിത്തങ്ങളെന്ന് പറയാന് ഓക്കെ മറ്റുത്തരവാദിത്തങ്ങളുടെ കൂടെ ഇപ്പോള് ഞാനതൊരു ഹോബിയും അതിനപ്പുറം ഒരു എന്താപറയുക ഒരു മണി ഏണിങ് പ്ലാറ്റ്ഫോമായിട്ട് അപ്പോള് അതെന്റെയൊരു ഒരു റെസ്പോണ്സിബിളിറ്റിയുംകൂടിയാണല്ലൊ അപ്പോള് ഞാന് കൂടുതലെന്തായാലും സമയം കണ്ടെത്തും ഒരു ഷെഡ്യൂള് ഞാന് കീപ്പ് ചെയ്യും അതായത് നെയ്ത്ത് എന്ന് പറയുമ്പഴത്തേക്കും ഞാന് യാണ് വെച്ചിട്ടുള്ള നെയ്ത്തുകളാണ് സ്വെറ്ററുകള് സ്വെറ്റ് ഷര്ട്ടുകള് മഫ്ലറുകള് ക്യാപ്പുകള് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഞാന് ചെയ്യുന്നെ എനിക്കിഷ്ടമാണ് അതിന്റെ പാറ്റേണുകള് പഠിക്കാനെനിക്കിഷ്ടാണ് ആന്റിറ്റ്സ് ഡിഫ്രന്റ് പാറ്റേണ്സപ്പോള് ഞാനതിനായിട്ടുള്ളൊരു ഇത് കണ്ടുപിടിക്കുക ഇപ്പോള് സ്റ്റിച്ചിങ്ങാണെങ്കിലും ഓരോ ഡിസൈനിന് ബേയ്സ്ഡ് അപ്പോള് അതിന് കുറച്ച് സ്റ്റഡി ചെയ്യണം അപ്പോള് ഞാന് ഒരു ദിവസത്തിന്റെ ഇങ്ങനെ ഒരു ഒരു വീക്കായിരിക്കും ഞാന് പ്ലാന് ചെയ്യുക എനിക്ക് കിട്ടുന്ന വര്ക്കിനനുസരിച്ചല്ലെ എനിക്കെന്തെങ്കിലും ചെയ്ത് തീരണമെന്നുണ്ടെങ്കില് അതിനനുസരിച്ച് ഞാനതിനനുസരിച്ചിട്ടായിരിക്കും പ്ലാന് ചെയ്യുക ഇപ്പോള് എന്റെ എന്റെ ഡെയിലി എന്റെ വര്ക്കും വേറെയുള്ള ഷെഡ്യൂളുകളും അതിനൊരു ടൈമിങ്ങുണ്ടല്ലോ അതിനിടയ്ക്ക് ഞാന് നൈറ്റായിരിക്കും പ്രിഫെര് ചെയ്യുന്നത് കൂടുതലും ജോലി കഴിഞ്ഞ് വന്നിട്ടുള്ള സമയങ്ങള് ഞാന് കുറച്ച് ടൈം റെഫര് ചെയ്യാനും പഠിക്കാനുമായിട്ട് മാറ്റിവയ്ക്കും നിറ്റിങ്ങ് അത് തീര്ന്നുപോകുന്ന ഒരു ഇതല്ല ഇങ്ങനെ പുതിയപുതിയ പാറ്റേണുകളും ഡിസൈനുകളിലും ട്രെന്ഡ് മാറിക്കൊണ്ടേയിരിക്കുകയാണ് സ്റ്റിച്ചിങ്ങിനാണെങ്കിലും കട്ടിങ് പാറ്റേണുകളും സ്റ്റിച്ചിങ് പാറ്റേണുകളുമൊക്കെ മാറിക്കൊണ്ടിരിക്കും അപ്പോള് പഠിക്കാന് കുറച്ച് സമയമെടുക്കും മാറ്റിവയ്ക്കും ബാക്കി ഈ പഠിച്ചത് ഞാനാദ്യം ട്രയല് നോക്കും അപ്പോള് ഇതിനൊരു സമയം ഞാന് മാറ്റിവയ്ക്കും പിന്നെനിക്കെന്നേലും വര്ക്ക് വരുകയാണെങ്കില് അത് ഞാനവര് പറയുന്ന ടൈമിനുള്ളില് ചെയ്യാനുള്ള രീതിയില് ഞാന് ഷെഡ്യൂളെയ്യും അപ്പോള് ഞാന് എല്ലാം കറക്റ്റായിട്ട് ചാര്ട്ട് ചെയ്ത് ഷെഡ്യൂളേയ്തിട്ടാണ് ഇത് ചെയ്യുന്നപ്പോള് പണിക്കിടയിലെനിക്ക് പ്രചോദനം നല്കുന്നതെനിക്ക് ഫാഷനോടൊള്ള എന്റെ ഇന്ട്രസ്റ്റും അ ട്രെന്ഡും ട്രെന്ഡിനോടുള്ള ഫോളോ ചെയ്യണമെന്നുള്ളൊരാഗ്രഹമൊക്കെത്തന്നെയാണ് പിന്നെ പാട്ട് കേള്ക്കുക പിന്നീ റ്റൂറ്റോറിയല് വീഡ്യോസ്സ് കാണുക പിന്നെ ഇടയ്ക്കെന്തെങ്കിലുമൊക്കെ തിന്നുകൊണ്ട് അങ്ങനെയൊക്കെ എന്റെ എന്നാപറയുക ബോറടിപ്പിക്കാതെ ഞാന് അത് കമ്പ്ലീറ്റെയും